വിവിധ ഇനം ഒഴിവു സമയ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധിയുണ്ട് കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയും ഗവണ്മെൻ്റിൻ്റേതായതും അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ളതുമായ ഒരുപാട് സ്ഥലങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ശനിയും ഞായറും അവധി ദിവസം വരുന്ന സമയത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ചെയ്യുന്നവർ ആ ഒരു ഒഴിവ് സമയം അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലൈഫ് കഴിഞ്ഞിട്ട് ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടോ എൻജോയ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി അവർ സമയം ചിലവഴിക്കാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫിന് പ്രാധാന്യം കൊടുത്ത് ഇപ്പോൾ ഗവണ്മെൻ്റ് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു വീഥിയാണ് മാനവീയം വീഥി അവിടെ രാത്രി ഒരു എട്ടു മണി ഏഴു മണി കഴിയുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ വരും കൂടുതലും ചെറുപ്പക്കാരാവാം അല്ലായെന്നുണ്ടെങ്കിൽ ഇടത്തര പ്രായക്കാരാവാം എല്ലാ പ്രായക്കാർക്കും ഒരു പ്രായം എന്നത് ഒരു ഇതായിട്ട് ആ സ്ഥലത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടുതന്നെ എല്ലാ പ്രായത്തിലുള്ളവർക്കും അവിടെ പോവുകയും അവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കലാപരിപാടികൾ ആസ്വദിക്കാനും അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വീഥിയാണ് മാനവീയം വീഥിയിൽ ഗവണ്മെൻ്റ് തന്നെ തുറന്ന് കൊടുത്തിട്ടുള്ളത് അതു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരുമൊത്തോ അല്ലെങ്കിൽ കുടുംബമായിട്ടൊ പോവാനായിട്ട് നിരവധി റസ്റ്റോറൻ്റുകൾ ഹോട്ടലുകൾ ഫുഡ്ഡ് കഴിക്കാനായിട്ട് ഒരുപാടുണ്ട് അതും പല രീതിയിലുള്ളത് വെജിറ്റേറിയനാണെങ്കിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ അങ്ങനെ പല രീതിയിലും പല രാജ്യത്തെ ഫുഡ്ഡുകളായാലും അവിടെയെല്ലാം അത് കാണപ്പെടുന്നുണ്ട് ആ ഒരു രീതിയിലും എല്ലാവർക്കും അവരുടെ ഒഴിവു സമയം ചിലവഴിക്കാൻ പറ്റും പിന്നെ ക്ലബ്ബുകൾ പബ്ബുകൾ എല്ലാമിപ്പോൾ കേരളത്തിലും ഓപ്പണാക്കിയിട്ടുണ്ട് പിന്നെ റെസ്റ്റോറൻ്റെന്നു പറയുമ്പോൾ ഓരോ ഓരോ ആൾക്കാരുടെ താൽപ്പര്യത്തിനനുസരിച്ച് നമുക്ക് പോയി വിവിധ സ്ഥലത്ത് പോയി കഴിക്കാം ഇപ്പോൾ സീ വ്യൂ റെസ്റ്റോറൻ്റുണ്ട് ഇപ്പല്ലെങ്കിൽ ടൗൺ വ്യൂ റെസ്റ്റോറൻ്റുണ്ട് അപ്പം ഇതെല്ലം സിറ്റിയുടെ നടു ഭാഗത്ത് അല്ലെങ്കിൽ സിറ്റിയുടെ മെയിൻ സെൻ്ററെന്നു പറയുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒന്ന് ട്രാവൽ ചെയ്ത് അവിടേക്ക് പോയൊന്ന് റിലേക്സായിട്ട് ഒക്കെ നമുക്ക് തിരിച്ച് വരാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ട് അത് അതു മാത്രമല്ല ഇതെല്ലം പ്രധാന വിനോദ കേന്ദ്രങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നതും